വസ്ത്രങ്ങൾ കഴുകാൻ നിങ്ങൾ എന്താണു ചെയ്യുന്നത് എന്നു ചോദിച്ചാൽ ഞങ്ങള് സാധാരണ നമ്മള് സോപ്പ് പൊടി അല്ലെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങള് കഴുകും എന്നിട്ട് അവ നമ്മല് വെയിലത്തൊക്കെ വച്ച് ആ ഉണക്കി റെഡിയാക്കിയിട്ടാണ് നമ്മളതെടുക്കുന്നത് അ സാധാരണ എല്ലാവരും ഈ വാഷിംഗ് മെഷീന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അ ഉപയോഗിക്കാത്തവരായിരുന്നു പണ്ട് ഇന്നു പക്ഷെ അതല്ല അലക്കുകല്ല് എന്നൊരു സംഭവം വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായി മാറിയിരിക്കുകയാണ് പണ്ടുകാലങ്ങളിലെല്ലാം നമ്മളൊക്കെ ചെയ്തിരുന്നത് അലക്കുകല്ലിലടിച്ചു തിരുമ്പി അവയെല്ലാം നല്ലവണ്ണം വെള്ളത്തിലിട്ടു മുക്കി ഒലുമ്പി എടുത്ത് ഒലുമ്പി എടുത്ത് അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറ് എന്നിട്ട് പിന്നെ അതു നല്ലവണ്ണം പിഴിഞ്ഞിട്ട് ഉണക്കുക അയലില് ഉണക്കി നല്ല വെയിലത്തുണക്കി മടക്കി എടുത്തുവയ്ക്കുമ്പോള് അതിനൊരു വൃത്തി വേറെ തന്നെയാണ് അത് ഇ സ്തിരിയിട്ട് ഉപയോഗിക്കുമ്പോള് കിട്ടുന്നത് ആ ഒരു വൃത്തിയുണ്ടല്ലോ അതൊരു വേറെ തന്നെയാണ് ഇന്നെല്ലാവരും വാഷിംഗ് മെഷീനില് നേരെ ഡ്രസ്സങ്ങു കൊണ്ടുപോയി ഇടുകയാണ് എന്നിട്ട് നേരെ അതില് കിടന്നു രണ്ടു കറക്കം കറങ്ങിക്കഴിഞ്ഞാല് വീണ്ടും ഒന്നും കൂടി തിരിച്ച് ഒരു രണ്ടു കറക്കം കൂടി കറങ്ങിക്കഴിയുമ്പോഴത്തേന് അതിൻ്റെ കഴുകുക എന്ന ആ ഒരു രീതി അവിടെ കഴിഞ്ഞു രണ്ടുമൂന്നു കറക്കം കറങ്ങിക്കഴിഞ്ഞാല് നേരെ അതെടുത്തിട്ട് ആ അത് ഉണക്കാനുള്ള ട്യൂബിലേക്ക് ഇടും അങ്ങനെ അതില് കിടന്നിട്ട് അത് ഉണങ്ങി കറങ്ങി വീണ്ടും കറങ്ങി ഫുൾ കറക്കം കറക്കം കറക്കം അങ്ങനെ വാഷിംഗ് മെഷീനിലാണ് ഇന്നത്തെ ഒരുവിധം ആളുകളൊക്കെ തിരുമ്പുന്നത് അങ്ങനെ വസ്ത്രങ്ങൾ കഴുകിയശേഷം നേരെ അയയിൽ ഇട്ടുണക്കുന്നു അങ്ങനത്തെ വസ്ത്രങ്ങൾ പെട്ടെന്നു കേടു വരാനും സാധ്യത കൂടുതലാണ് എന്നാണ് ഇന്നത്തെ പഠനങ്ങൾ പറയുന്നത് നമുക്കറിയില്ലാട്ടോ പലരും പലതരത്തിലാണു പറയുക നമ്മള്ക്കെന്നു പറഞ്ഞാൽ അധികവും കൂടുതലും ഉപയോഗിക്കുന്നത് സാധാരണ നമ്മള് വെള്ളം ഉപയോഗിച്ച് സോപ്പ് പൊടിയോ സോപ്പോ ഉപയോഗിച്ച് കഴുകി അത് അ ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഒരുപാടു വെള്ളവും കാര്യവും വേണ്ടിവരും പക്ഷെ നമ്മള് ഇത് സെപ്പറേറ്റായിട്ട് ചെയ്യുമ്പോള് നമുക്കു കുറച്ചു വെള്ളം മതി ഒരുപാട് വെള്ളം പാഴാവുന്നില്ല ഇന്നത്തെ കാലത്തു വെള്ളം ഉപയോഗിക്കുന്നതിനൊന്നും കണക്കില്ലാണ്ടാാവുന്നൊരു സമയമാണ് അപ്പോള് നമുക്ക് എത്രത്തോളം വെള്ളം പാഴാക്കാണ്ടിരിക്കാൻ പറ്റുമോ അത്രയും സൂക്ഷിച്ചുകൊണ്ടു നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക വസ്ത്രങ്ങൾ കഴുകാനായിക്കോട്ടെ അതു മറ്റു കാര്യങ്ങൾക്കായിക്കോട്ടെ എല്ലാത്തിനും വെള്ളം എപ്പോഴും നമ്മള് സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക